ഞാൻ ശ്രമിച്ചിട്ടുള്ള ആയോധനകല എന്ന് പറയുമ്പോൾ അത് കളരിയാണ് കളരിക്ക് ഏറ്റവും ആവശ്യമായത് അച്ചടക്കവും മെയ്വഴക്കവും പിന്നെ സമാധാനമാണ് നമ്മൾ വളരെ അച്ചടക്കമായിട്ട് നമ്മളുടെ ആശാൻ പറയുന്നത് പോലെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അല്ലാതെ സ്വന്തം ഇഷ്ട പ്രകാരം ഒരു കാര്യം ചെയ്യാൻ പാടില്ല പിന്നെ പരിശീലനം എന്ന് പറയുമ്പോൾ നല്ല മെയ് വഴക്കം ഉണ്ടാക്കി എടുക്കുന്നതാണ് കളരിയിൽ ഒന്നാമത്തെ കാര്യം നമ്മളുടെ ശരീരം ഭയങ്കര ഫ്ലെക്സിബിൾ ആക്കി എടുക്ക ഭയങ്കര മെയ് വഴക്കം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ പരിശീലനം എന്ന് പറയുമ്പോൾ നല്ല ആരോഗ്യപ്രശ്നങ്ങളും കാര്യങ്ങളും ശരീരവേദനയൊക്കെ ഒരുപാട് വരുന്ന ഒരു കാര്യമാണ് പിന്നെ അച്ചടക്കം എന്ന് പറയുമ്പോൾ വളരെ ഏക ഏകാകൃതിയും പിന്നെ വളരെ ശാന്തമായിട്ട് വേണം നമ്മുടെ സ്വഭാവം നമ്മൾ നിയന്ത്രിക്കാൻ ആരോടും എതിർത്ത് പറയാനോ കാര്യങ്ങൾക്കൊന്നും നിൽക്കരുത് വളരെ അച്ചടക്കമായി നമ്മളുടെ ആശാനെന്താണോ പറയുന്നത് അതും കേട്ട് വളരെ അച്ചടക്കത്തോടെ ഇരിക്കണം അതാണ് ഒരു ആയോധനകലയ്ക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ